എൻ്റെ പ്രദേശത്തെ യുവാക്കള് നേരിടുന്ന തൊഴിലവസരങ്ങള് അങ്ങനെ ഒരുപാട് വെല്ലുവിളികള് അവര് നേരിടുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ മതിയായ ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ യുവാക്കള്ക്ക് ഒരുപാട് ചെറുപ്പകാലത്തുതന്നെ കുടുംബത്തിലെ പ്രാരാബ്ദവും മറ്റു കാര്യങ്ങളും ഏറ്റെടുക്കുന്നതുകൊണ്ട് ഏറ്റെടുക്കേണ്ടൊരു സാഹചര്യം വരുന്നത് കൊണ്ടവര്ക്ക് നേരെ വിദ്യാഭ്യാസം നേടാന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവര്ക്ക് തൊഴില് മേഖലകളില് അവര്ക്ക് അധികം ഉയരങ്ങളിലെത്താന് സാധിക്കുന്നില്ല തൊഴിലുകളൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ ഇടക്ക് തൊഴില് ഇടക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കില് വിദ്യാഭ്യാസം മുടക്കിയവര്ക്ക് പിന്നീടവര് വല്ല എന്തെങ്കിലും ചെറിയ കൈത്തൊഴിലുകള് തേടി പോകുന്നു കുറച്ചുകൂടി പഠിച്ചവര്ക്ക് അതിന്റേതായ രീതിയിലുള്ള ജോലി മറ്റു മേഖലകളും തെരഞ്ഞെടുത്ത് പോകുന്നു